അ ഹലോ ആ ഓക്കെ എന്തായിരുന്നു വിളിച്ചത് ആണല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എവിടെ ലോക്കഷൻ എവിടെയാണ് നോക്കുന്നത് ടൗൺ ഏരിയ അല്ലെ ആ നമുക്ക് ഇടുക്കിയിൽ ഇപ്പോൾ ടൗൺ കട്ടപ്പനയുണ്ട് അടിമാലി വരുന്നുണ്ട് പിന്നെ മൂന്നാർ ഏരിയയിലേക്ക് ഉണ്ട് തൊടുപുഴ ഏരിയലൊക്കെ ഉണ്ട് ഇവിടെ ഏത് ഏരിയ വേണ്ടത് ആ ഓക്കെ ആ ലാൻഡ് മാത്രം മതിയോ ലാൻഡ് മാത്രായിട്ട് മതിയോ എന്ന് ആ ഓക്കെ ഓക്കെ റിസോർട്ട് വല്ലതും പണിയാൻ വേണ്ടിയാണോ ആ ഓക്കെ ആണ് അല്ലേ ആ ശരി ശരി ആ ഓക്കെ ആ എത്ര സെൻ്റ് അങ്ങനെ എന്തോരം പ്രതീക്ഷിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ആ ആ ആ ആ ഓക്കെ നമ്മുക്ക് ഒരു ഫാമും ഫാമും ഒരു ഒരു പതിനൊന്ന് പത്ത് പതിനഞ്ച് ഏക്കറുള്ള ഒരു പത്ത് ഏക്കറിൻ്റെ ഒരു ഫാമു കൊടുക്കാൻ കിടപ്പുണ്ട് മൂന്നാർ മൂന്നാറ് അല്ല ആനച്ചാൽ മൂന്നാറിൽ നിന്ന് പത്ത് കിലോ മീറ്ററ് വ്യത്യാസമുണ്ട് അവര് സെൻ്റിന് ചോദിക്കുന്നത് ഒരു രണ്ട് ലക്ഷമാണ് ഉം കുഴപ്പം ഇല്ല അല്ലേ ആ പത്ത് ഏക്കറുണ്ട് പത്ത് ഏക്കറുണ്ട് ഉം ആ പട്ടയ സ്ഥലമാണ് നമുക്ക് കുറച്ച് ഇടിച്ച് സെൻ്റിന് രണ്ടാണെങ്കിലും കുറച്ചും കൂടെ താത്തി കിട്ടുമോ എന്നൊന്ന് നോക്കാം നമ്മുക്ക് അത് ഓക്കെ എന്തോ പഴയ കോട്ട പഴയ കോട്ട ആനച്ചാൽ ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ റിസോർട്ട് നല്ലതാണ് റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ് ആ പുല്ല് അതെ ഉള്ളു രണ്ട് ഏക്കറ് ഓൾറെഡി ഫാമാണ് ഫാമിൽ കൃഷി കാര്യങ്ങൾ ഒൾറെഡി ഉള്ളതാണ് ഇനി ബിൽഡിങ് പണിയാനുള്ള സ്പേസും കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഒരു ദിവസം ഇറങ്ങൂ നമുക്ക് നോക്കാം ആനച്ചാൽ എത്തിയിട്ട് വിളിച്ചാൽ മതി ആ ഓക്കെ ശരി